ഗ്രാമത്തിലുള്ളവർക്ക് ഒരു സംരംഭം തുടങ്ങാൻ ഒരുപാട് വെല്ലുവിളികൾ നേരിടേണ്ടി വരും കാരണം എന്തുകൊണ്ടാണെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ ഇപ്പം നോക്കുവാണെങ്കിൽ ഗ്രാമമാണ് ഗ്രാമത്തിന് ഗ്രാമത്തിൻ്റേതായ പോരായ്മകൾ ഉണ്ട് കാരണം ഗ്രാമത്തിൽ നമ്മൾ വിചാരിക്കുന്ന പോലെ ഒരുപാട് കാര്യങ്ങൾ ഗ്രാമത്തിൽ അതിന് അവർക്ക് അവിടെ ഒരുപാട് കാര്യങ്ങൾ കണ്ടെത്താൻ സാധിക്കത്തില്ല ഒന്നാമത്തെ കാര്യം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നല്ല ഒരു നല്ല ഒരു സ്ഥലം വേണം ഗ്രാമത്തിൽ ആ സ്ഥലത്തിൽ ഒരു പുതിയ ഒരു കാര്യം കൊണ്ട് വരുമ്പോൾ ആ ഗ്രാമത്തിലുള്ള ആൾക്കാർ അതിനെ അതിനെ ഏറ്റെടുക്കുവാൻ തയ്യാറായിരിക്കണം ചില ചില സാഹചര്യത്തിൽ ഗ്രാമത്തിലുള്ള ആൾക്കാർ ആ ഒരു കാര്യത്തെ പ്രശ്നത്തെ ഏറ്റെടുക്കാൻ തയ്യാറാവാതെ വരികയും അങ്ങനെ ഒരുപാട് പ്രശ്നങ്ങളിലേക്ക് നയിക്കുകയും ചെയ്യാറുണ്ട് കാരണം എപ്പോഴും അത് ഒരു വെല്ലുവിളിയാണ് കാരണം എപ്പോഴും ഒരു ഒരു കാര്യം പുതുമ ആയൊരു കാര്യം ചെയ്യുമ്പത്തേക്കും അതിനെ അതിനെ ഒന്ന് പിന്തുണയ്ക്കുവാനോ അതിനെ ഒന്ന് മനസ്സിലാക്കുവാനോ അതിനെ ഒന്ന് ഉള്ളിലേക്ക് ഗ്രഹിക്കാനോ ഗ്രാമത്തിലുള്ള ആൾക്കാർക്ക് ചിലപ്പോൾ സാധിച്ചെന്ന് വരില്ല അത് ഒരു വലിയ ഒരു വെല്ലുവിളിയാണ് അത് അടുത്ത ഒരു വെല്ലുവിളി എന്ന് പറയുന്നത് ഗ്രാമത്തിലുള്ള ഗ്രാമത്തിൽ ഇപ്പോൾ എന്തെങ്കിലും ഒരു പുതിയ സംരംഭം തുടങ്ങി കഴിഞ്ഞാൽ അവിടെയുള്ള ആൾക്കാർ അവിടെയുള്ള അവിടെ എത്താൻ സാധിക്കാതെ വരുന്നവരുണ്ട് കാരണം നഗരത്തിൽ ഒരുപാട് ഒരുപാട് പിന്നെ ഒരു ഒരുപാട് ഒരുപാട് കാര്യത്തിൽ ഓടിച്ചു കൊണ്ട് പോകുന്ന നഗരത്തിൽ ജീവിക്കുന്ന ആൾക്കാർക്ക് ഗ്രാമത്തിൽ വന്നു പാർക്കാൻ ഗ്രാമത്തിൽ വന്നു അതിനെ ആ സംരംഭത്തെ നേരിടാൻ ചിലപ്പോൾ കഴിയണമെന്ന് ഇല്ലായിരിക്കും അങ്ങനെ വരുമ്പോൾ ഒരുപാട് വെല്ലുവിളി ഗ്രാമത്തിലുള്ള ആൾക്കാർ അത് നേരിടേണ്ട അവസ്ഥ തന്നെ വരും പിന്നെ ഗ്രാമമാണ് ഗ്രാമത്തിന് ഗ്രാമത്തിൻ്റേതായ ഒരു പോരായ്മകളുണ്ട് പിന്നീട് വരുമ്പോൾ ഇന്ത്യേയുടെ ഉൾ നാട്ടിൽ സംരംഭങ്ങൾ പിന്തുണയ്ക്കാൻ എന്താണ് ചെയ്യേണ്ടതെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ നമ്മൾ ഉൾനാട്ടിലേക്ക് പോകുമ്പോൾ അവിടെ കൂടുതലായിട്ട് നമ്മൾ അവർക്ക് വേണ്ട കാര്യങ്ങൾ ചെയ്തു കൊടുക്കണം അവർക്ക് വേണ്ട റോഡ് ഫെസിലിറ്റീസ് ചെയ്തു കൊടുക്കണം എന്നാലേ അവർക്ക് ഒരു കുറച്ചും കൂടെ ഒന്ന് എളുപ്പമാകത്തുള്ളൂ കാര്യങ്ങൾ കാരണം അവിടെ പുതിയ പുതിയ സംവിധാനങ്ങൾ റോഡ് നിർമ്മിക്കുക ആ റോഡ് നിർമ്മിച്ച് നല്ല ഒരു റോഡ് നിർമ്മിക്കുക നല്ല ഒരു വഴി ഉണ്ടാക്കി കൊടുക്കുക പിന്നെ കെട്ടിടം പണിയുക കെട്ടിടം നല്ല രീതിയിൽ പണിയുക ഈ കെട്ടിടം പണിയുമ്പത്തേക്കും അവിടുത്തെ അവിടുത്തെ കാലാവസ്ഥയെ നിരീക്ഷിച്ച് അവിടത്തെ മണ്ണിനെ നിരീക്ഷിച്ച ശേഷം ഇങ്ങനയുള്ള കാര്യങ്ങൾ ചെയ്യുമ്പോൾ കൂടുതൽ കൂടുതൽ നമുക്ക് മനസ്സിലാക്കാൻ കഴിയും എന്തൊക്കെ നമുക്ക് മാറ്റങ്ങൾ കൊണ്ടു വരാൻ വേണ്ടി പറ്റും അപ്പോൾ എപ്പോഴും നമ്മൾ മാറ്റങ്ങൾ എല്ലാ കാര്യത്തിനും നമ്മൾ അനിവാര്യമായ കാര്യമാണ് അപ്പോൾ നമ്മൾ എപ്പോഴും ചെയ്യുമ്പോൾ നമ്മൾ കൂടുതൽ കൂടുതൽ അതിനെ പറ്റി ഗ്രഹിച്ചിട്ട് വേണം ചെയ്യാൻ വേണ്ടി കാരണം ഇത് ഇന്ത്യയാണ് ഇന്ത്യയിൽ ഉൾ നാട്ടിൽ സംരംഭങ്ങൾ പിന്തു ണയ്ക്കുവാൻ നമുക്ക് ഒരു നമുക്ക് സാധിക്കുകയും ചെയ്യും കാരണം അതിനെ നമ്മൾ ഗ്രാഹ്യമായി പഠിച്ചതിന് ശേഷം അതിനെ കൂടുതലായിട്ട് അറിഞ്ഞതിന് ശേഷമേ നമ്മൾ ഉൾ നാട്ടിലേക്ക് പോയി ആ സംരംഭങ്ങൾ തുടങ്ങാൻ പാടുള്ളൂ കാരണം എന്നാലേ ആ ഒരു സംരംഭം വിജയിക്കത്തുള്ളൂ ആ ഒരു സംരംഭത്തിന് വിജയിക്കാൻ നമുക്ക് കൂടുതലായിട്ട് പ്രാർത്ഥിക്കുകയും അതിനെ പറ്റി കൂടുതലായിട്ട് നമുക്ക് അതിനെ പറ്റി അറിയാൻ സാധിക്കുകയും ചെയ്യും അതാണ് എനിക്ക് പറയാനുള്ളത് ഗ്രാമങ്ങളിൽ ഒരു സംരംഭം തുടങ്ങാനുള്ള വെല്ലുവിളികളും ഇന്ത്യയിൽ ഒരു സംരംഭം തുടങ്ങിയാൽ ഉള്ള ഒരു വെല്ലുവിളികളെ പറ്റി എനിക്ക് പറയാനുള്ളത് ഇത്രയും മാത്രമേ ഉള്ളൂ